ഹലോ ഇത് വില്ടന് ഹോട്ടൽ അല്ലേ ആ ഇത് പുൽപ്പള്ളിയിൽനിന്ന് ആയിരുന്നു നമുക്ക് ഒരു പതിനഞ്ച് പേർക്കുള്ള സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരുന്നു എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണ് നിങ്ങളുടെ മെയിൻ ഫുഡ് ഐറ്റംസ് ഇവിടെ വരുന്നത് ആ ആ ആ നമുക്ക് മന്തി ഐറ്റംസ് ആണ് കൂടുതലും വേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ ആ ഒരു പയിനഞ്ച് പേർക്കുള്ള സീറ്റ് ഉണ്ടാകുമല്ലോ അല്ലേ ആ ആ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര മണിയോട് കൂടിയാണ് സീറ്റ് ഫ്രീ ആവുക എന്ന് ഒന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ആ ടൈമിന് അനുസരിച്ച് ഇന്ന് ഇറങ്ങാമായിരുന്നു ഇന്നോ നാളെയോന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളെത്തേക്ക് ആയിരിക്കും നമുക്ക് വേണ്ടത് നമ്മൾ എന്തായാലും നിങ്ങൾ ടൈം ഒന്ന് കൺഫോം ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാളത്തേക്ക് ആണെങ്കിൽ കൺഫോം പറയാം ഓക്കെ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ സീറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് എന്തായാലും കിട്ടുമോ ഇല്ലയോയെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ